ശരീര ഭാരം അല്ല ശരീരഭാരം കൂട്ടാൻ ശ്രമിക്കുന്നവർക്ക് ചില നാട്ടു വൈദ്യങ്ങൾ നാട്ടുവൈദ്യങ്ങൾ നാട്ടു വൈദ്യന്മാരുണ്ട് വൈദ്യന്മാർ പറയുന്ന ചില ആരോഗ്യപരമായ ആരോഗ്യപരമായ മരുന്നുകളുണ്ട് കഷായങ്ങളാകാം ചില പൊടികളത് വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കുന്നതും ആകാം അങ്ങനത്തെ വൈദ്യന്മാർ പറയുന്നത് കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ കഴിക്കുക ആണെങ്കിൽ ശരീരം കൂട്ടാൻ ശരീരഭാരം കൂട്ടാൻ ശ്രമിക്കുന്നവർക്ക് അത് വളരെ ഒരു സഹായകപരമാകും ഈ ഈ നാട്ടു വൈദ്യന്മാർ പറയുന്ന കൃത്യം കൃത്യം കൃത്യ രീതിയിലുള്ള പ്രക്രിയ പ്രക്രിയയിലൂടെ ഇത് വളരെ അധികം സഹായപ്രദമാവും

കൃത്യം അവർ പറയുന്ന രീതിയിൽ ഉള്ള കൃത്യമായ രീതി പറയുന്നതിനുള്ള കഷായം കുടിക്കുകേം അവർ അങ്ങനെ കഴിക്കുക ആണെങ്കിൽ കൃത്യ രീതിയിൽ നമുക്ക് അത് സഹായപരമാകും അങ്ങനെ നമ്മളെ വണ്ണം വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സഹായി ഒരു സഹായിക്കും ശരീരഭാരം ഒരു അത്ത തീർത്ത് മെലിഞ്ഞിരിക്കുന്നവർ ആണല്ലോ ശരീരഭാരം കൂട്ടാൻ ശ്രമിക്കുന്നത് അപ്പം കൃത്യമായ ചിട്ടയിലുള്ള നാട്ട് കൃത്യം ചിട്ടയിൽ നാട്ടു വൈദ്യൻ പറയുന്നത് അനുസരിച്ച് തന്നെ കൃത്യം ചിട്ടയിൽ ചെയ്യുക ആണെങ്കിൽ ശരീരഭാരം കൂട്ടാൻ നമ്മളെ സഹായിക്കും ശരീരഭാരം കൂട്ടാൻ അത് നമുക്ക് സഹായപരമാകും നാട്ടു വൈദ്യന്മാർ നിശ്ചയിക്കുന്ന നാട്ട് നാട്ടുമരുന്നുകളാണ് അത് ആരോഗ്യം വണ്ണം വെക്കാൻ അല്ല ശരീരഭാരം കൂട്ടാൻ മാത്രം അല്ല സഹായിക്കുന്നത് അത് ആരോഗ്യപരമായ രീതിയിലും അത് വളരെ ഗുണങ്ങൾ നമ്മുടെ നമ്മുടെ ശരീരത്തിന് അത് ആവശ്യമായി തീരുന്നു അത് ആവശ്യമായി തീരുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മളെ സഹായിക്കുന്നു